ഗുഡ് മോർണിംഗ് മാം എന്താണ് നോക്കുന്നത് ഫ്രിഡ്ജ് ഓക്കെ ഏത് ബ്രാൻഡാണ് നോക്കുന്നത് സാംസംഗ് ഉണ്ട് എൽ ജി ഉണ്ട് വേൾപൂൾ ഉണ്ട് പാനസോണിക് ഉണ്ട് ഏതാണ് നോക്കുന്നത് ഇപ്പം നല്ല മൂവിംഗായിട്ടും ഓഫറും കൊടുക്കുന്നത് വേൾപൂളിനാണ് കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് ഒക്കെ ഓക്കെ മാം ഇത് വന്ന് ഡിഫ്റൻ്റ് കളേസാണുള്ളത് പിന്നെ ഡിസൈൻ ഉള്ളത് ഉണ്ട് പാറ്റേൺ ഇല്ലാത്തതും പാറ്റേണുള്ള ടൈപ്പ് ഒക്കെയാണ് ഇപ്പം ഉള്ളത് ഇതാണ് ഫ്രിഡ്ജ്

ഓക്കെ ഓക്കെ അപ്പോൾ അത് ഈ സെക്ഷനിലേക്കാണ് ഈ ഫ്ലവർ പാറ്റേൺ വരുന്നുണ്ട് അല്ലാണ്ട് ഒരു സ്ക്വയർ സ്ക്വയർ പാറ്റേൺ ഡയമണ്ട് പാറ്റേൺ ഒക്കെയാണ് വരുന്നത് എങ്ങനെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണോ വേണ്ടത് അതോ സിംഗിൾ ഡോർ ഫ്രിഡ്ജാണോ വേണ്ടത് ഡബിൾ ഡോറ് ഇപ്പം ഈ ഒരു ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ഫോർ ലിറ്ററിൻ്റെയാണ് അത് നൂറ്റി എൺപത്തി നാല് ലിറ്ററിൻ്റെ ഫ്രിഡ്ജാണ് ഇത് വന്ന് സിംഗിൾ ഡോറാണ് പക്ഷെ അതിന് വന്നിട്ട് ഓഫറുണ്ട് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് ഇപ്പോൾ ആ ഓൺ മാർക്കറ്റ് പ്രൈസ് വരുന്നത് പക്ഷെ ഇത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഓഫർ ഉള്ളത് കൊണ്ട് ആ ട്വ ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് ഓൺ മാർക്കറ്റ് പ്രൈസ് വരുന്നത് ആ ഇപ്പം നമുക്ക് ഓഫർ ഉണ്ട് ഓഫർ ഉള്ളത് കൊണ്ട് ട്വൻ്റി വൺ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് റുപ്പീസ് അത് ഇരുപത്തി ഒന്നായിരം രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഡബിൾ ഡോറിന് വന്നിട്ട് നാൽപ്പത്തി നാലായിരം ആവും ഓഫറ് കഴിഞ്ഞിട്ട് നാൽപ്പത്തി രണ്ട് അത് അത്രയേ കുറച്ച് ഓഫറേ അതുള്ളു കുറച്ച് ഡിസ്കൗണ്ട് അതിന് കൊടുക്കുന്നുള്ളു ഇപ്പം ഈ ഫ്രിഡ്ജാണ് ഇപ്പം നല്ല മൂവിംഗായിട്ടുള്ളത്

സ്റ്റെബിലൈസർ ആ ആ കറണ്ട് എല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റ് പെർ ഇയറ് കൊടുക്കത്തുള്ളു അത് കമ്പനി ഗ്യാരണ്ടി പറയുന്നതാണ്

വാറണ്ടി വന്നിട്ട് പത്ത് വർഷം ഉണ്ട് പിന്നെ വേറെ എക്സ്ട്രാ സ്റ്റെബിലൈസറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വയ്ക്കണ്ട ഡയറക്റ്റായിട്ട് കറണ്ടിൽ കൊടുത്താൽ മാത്രം മതി ആ ഇ എം ഐയും ഈ ഫ്രിഡ്ജിന് അവൈലബിളാണ് ആ മാം എങ്ങനെ സീറോ ഡൗൺ പേയ്മെൻ്റാണോ കൊടുക്കുന്നത് അതോ ഏതെങ്കിലും ഇനിഷ്യൽ പേയ്മെൻ്റ് മാം കൊടുക്കുന്നുണ്ടോ ഓക്കെ അപ്പം ഈസിയായിട്ട് ഇ എം ഐ കിട്ടും എങ്ങനെ നമ്മുടെ ആ കമ്പനിയുടെ തന്നെ ഇ എം ഐ വേണോ അതോ ബജാജ് ഫിനാൻസോ അങ്ങനെയൊക്കെയാണോ എടുക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പം ഈസിയായിട്ട് തന്നെ മാമിന് ഇപ്പം തന്നെ ഫ്രിഡ്ജ് നമുക്ക് ഹാ ക്യാഷ് പ്ലേസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പം ഇത് പാക്ക് ചെയ്യാനായിട്ട് പറയട്ടെ മാം ഓക്കെ ഓക്കെ അപ്പം വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ഫ്രിഡ്ജ് അല്ലാണ്ട് ഇപ്പം എസിക്ക് ഓഫറുണ്ട് ഓക്കെ മാം അപ്പോൾ ആ ഇവിടെ തന്നെ വന്നാൽ മതി ഇപ്പം മാം ബില്ലിംഗ് സെക്ഷനിലേക്ക് പൊക്കോളൂ അവിടെ ഫിനാൻസിൻ്റെ ആൾക്കാർ കാണും അവരുമായിട്ട് സംസാരിക്കാം അവർ ഗൈഡ് ചെയ്യും അത് പോലെ സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി പിന്നെ ആ ടെൻ തൗസൻഡ് പിന്നെ ഒരു ടെൻ തൗസൻഡ് കൊടുക്കുന്നത് കൊണ്ട് ആ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരില്ല അപ്പം മാമിന് ഇപ്പം തന്നെ ഫ്രിഡ്ജ് ചെയ്യാം പിന്നെ പാർസല് ചെയ്യാം വീട്ടിലേക്ക് അപ്പോൾ ഡോർ ഡെലിവറി അഡ്രസ്സ് അവിടെ കൊടുത്തിരുന്നാൽ മതി അതെ ഇന്ന് ഇപ്പോൾ ആ മാമിൻ്റെ വീട് എവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഏരിയയിലേക്ക് ഇന്ന് വൈകുന്നേരം ഒരു വണ്ടി പോവുന്നുണ്ട് അപ്പോൾ ആ വണ്ടിയിൽ കൊടുത്ത് വിടാം ഓക്കെ മാം താങ്ക് യു അപ്പം ഞാൻ ബാക്കി പ്രൊസീജിയറിന് വേണ്ടി പോവാം മാം ആ ബില്ലിംഗ് സെക്ഷനിലേക്ക് പൊയ്ക്കോളു ഞാൻ പാക്ക് ചെയ്യാനായിട്ട് പറയാം ഓക്കെ താങ്ക് യു മാം